വായനയിലേക്കു കടന്നു വന്നത് എങ്ങനെയാണ് വെച്ചാല് ചെറുപ്പം തൊട്ടേ എന്റെ കൊച്ചിലെ തൊട്ടേ എന്റെ അപ്പനും അമ്മയും ഈ ബാലരമ കളിക്കുടുക്ക കുട്ടികളുടെ ദീപിക അങ്ങനെയുള്ള ചെറിയ ചെറിയ കഥാപുസ്തകങ്ങളും കാര്ട്ടൂണ് നോവലുകള് ഒക്കെ എനിക്ക് വാങ്ങിച്ചു കൊണ്ടു തന്നായിരുന്നു അപ്പം അതൊക്കെ വായിച്ചാണ് എനിക്കു വായനശീലത്തിലേക്കു വരണം അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായത് ആ ചെറിയ ചെറിയ കഥാപുസ്തകങ്ങളിലൂടെയാണ് ആ ചെറിയ ചെറിയ കഥാപുസ്തകങ്ങള് വായിച്ച് പിന്നെ ചെറിയ ചെറിയ കഥകള് കഥകളുള്ള പുസ്തകങ്ങളായി പിന്നെ പിന്നെ ഈ പ്രായമൊക്കെ ആയപ്പം ഈ പ്ലസ് വണ് പ്ലസ് ടു കാലഘട്ടമൊക്കെ ആയപ്പം ചെറിയ ചെറിയ നോവലുകൾ വായിക്കാനും ഒക്കെ തുടങ്ങി ഇപ്പം ഇപ്പം എന്റെ പ്രധാന ഇതാണ് നോവലുകള് വായിക്കുക എന്നുള്ളത് ഇപ്പം നോവലുകള് വായിക്കുക എന്നുള്ളത് എനിക്കിപ്പം വളരെ ഇഷ്ടമുള്ള സംഭവമാണ് ഇപ്പം നോവൽ വായിക്കുന്നതു വളരെ ഇന്ട്രസ്റ്റിങ്ങാണ് നമുക്കു പുതിയ പുതിയ കഥാപാത്രങ്ങളെ അറിയാന് പറ്റും അവരുടെ ജീവിത സാഹചര്യങ്ങളും ആ കഥകളും ഒക്കെ നമുക്ക് അറിയാന് സാധിക്കും അപ്പം ഈ വായനയിലേക്കുള്ള എന്റെ കടന്നു വരവ് അങ്ങനെയായിരുന്നു ഈ ചെറിയ ചെറിയ കഥാപുസ്തകങ്ങള് വായിച്ചാണ് എനിക്ക് വായനയോടുള്ള ഇഷ്ടം ഉണ്ടായത് ആ വായിക്കാനുള്ള താത്പര്യവും ഇനി വന്നതും ആ ചെറിയ ചെറിയ കഥാപുസ്തകങ്ങളിലൂടെയാണ് അപ്പം ഈ വായനയിലേക്കു വരാനായിട്ടാണ് ചെറിയ കഥാപുസ്തകങ്ങള് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ആ ഒരു അത് വായിക്കാനായിട്ടുള്ള ആ ഒരു ഇന്ട്രസ്റ്റ് കൊണ്ടാണ് ഞാന് ചെറിയ ചെറിയ കഥാപുസ്തകങ്ങള് വായിക്കാന് തുടങ്ങിയതും പിന്നെ അത് നോവലുകളാകുകയും ഒക്കെ ചെയ്തത് ചെറിയ കഥാപുസ്തകങ്ങള് വഴിയാണ് അപ്പം എന്റെ വായനാശീലം വളര്ത്തിയെടുത്തത് ആ ചെറിയ ചെറിയ കഥാപുസ്തകങ്ങളാണ്